നമ്മുടെ ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ഇംഗ്ലീഷാണ് നമ്മുടെ ഔദ്യോഗിക ഭാഷയെന്നു പറഞ്ഞാൽ ഹിന്ദിയാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിലായിക്കോട്ടെ മലയാളത്തിലാണ് ഒട്ടുമിക്ക ആൾക്കാരും സംസാരിക്കാറ് എന്നാലും അവർ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ടായിട്ട് വരുന്നുണ്ട് കാരണം ആ ഇൻ്റർനാഷണൽ ഭാഷയായതുകൊണ്ട് പിന്നെ ഇന്ത്യയിലായിക്കോട്ടെ ഇന്ത്യയിലെ ഒരുപാട് ഭാഷയുണ്ട് ഹിന്ദിയിൽ ഹിന്ദി തമിഴ് തെലുങ്ക് മറാഠി ഉറുദു അത് അറബി അതുപോലെ ഒരുപാട് ഭാഷയുണ്ട് രാജ്യത്തിൻ്റെ ഭാഷാവൈവിധ്യം എന്നു പറഞ്ഞാൽ അതുപോലെയാണ് ഇപ്പോൾ കേരളത്തിലായിക്കോട്ടെ ഒരു ഇപ്പോൾ മലയാളത്തിൽ ഒരുപാട് സ്ലാങുണ്ട് അതുപോലെതന്നെ ഇന്ത്യയിൽ എന്താ പറയുക നൂറ് നാട്ടിൽ നൂറ് ഭാഷയാണ് ഇപ്പോൾ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളുണ്ട് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലും ഓരോന്നാണ് ഓരോ സംസാരങ്ങളാണ് മറാഠി ഗുജറാത്തി ബംഗാളി പഞ്ചാബി അങ്ങനെ ഓരോ ഭാഷയാണ് ഉള്ളത് ഭാഷാവൈവിധ്യങ്ങളെക്കുറച്ച് പറയുകയാണെങ്കിൽ ഒട്ടനവധി കാര്യം പറയാനുണ്ട് എന്താ പറയുക ഭാഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഡർസ്റ്റാൻ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ലാംഗ്വേജാണ് ഭാഷയില്ലെങ്കിലും ജീവിക്കാൻ കഴിയുന്നുണ്ട് കാരണം പിക്ചറ് നമ്മളെല്ലാവർക്കും ഭാഷയൊന്നുമില്ല കാരണം സംസാരിക്കാത്തവരും ജീവിക്കുന്ന കാലമാണ് ഉള്ളത്